ആ അതെയല്ലോ ആ കുഴപ്പമില്ല പറഞ്ഞോളൂ പ്ലസ് റ്റു പ്ലസ് റ്റു പ്ലസ് റ്റു ഏത് സ്ട്രീം ആയിരുന്നു ആ ഓക്കെ ഓക്കെ ഓക്കെ നല്ലൊരു ആഗ്രഹം തന്നെയാണത് ഐ എസ് ആർ ഒയെന്ന് പറയുന്നത് അറിയാമല്ലോ ഈ പിന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ആണ് ആ ഓർഗനൈസേഷൻ അതുതന്നെ അപ്പം അതെന്നു പറയുമ്പോൾ എന്താ താങ്കൾക്കപ്പം എങ്ങനെയാ ഈ സ്പേസിൽ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണോ ആ ആ അതെ ആ ഓ ഓ നല്ലൊരു ആഗ്രഹം തന്നെയാണത് സാധാരണ സാധാരണ മനുഷ്യന്മാർക്കൊന്നും ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ കാണത്തില്ല പക്ഷെ നിങ്ങളതിലൊരു സ്പെഷ്യൽ ആണ് ഇത് ചില സയന്റ്റിസ്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ആഗ്രഹങ്ങളൊക്കെ വരുന്നത് അത് വെച്ച് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആളാണ് ആ ആ അപ്പം അല്ല നിങ്ങൾക്കെന്താണ് സ്പേസിലോട്ട് പോകാനാണോ ആഗ്രഹം അതോ പഠിക്കാനാണോ ഇതിനെക്കുറിച്ച്

ആ അതിനാണെങ്കിൽ ഞാനൊരു ബെസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഇപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ അതിനു പറ്റിയ ഒരു ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗെന്ന് പറഞ്ഞൊരു കോഴ്സ് അറിയാമോ ആ ആ ഒരു കോഴ്സ് നാസ്റ്റ് പ്രിഫർ ചെയ്യുക ആ അത് പ്രിഫർ ചെയ്തിട്ട് ആ ഒരു കോഴ്സിൽ കുറേ റിക്വയർമെൻറ്സ് ഒക്കെ കാണും ഇപ്പം ഒരു നിങ്ങൾക്ക് പ്ലസ് ടുവിലൊരു സെവൻറി പെർസെൻറേജ് മാർക്കുണ്ടോ എബോവ് ആ ബട്ട് ഇവിടെ നയൻറി സിക്സ് പെർസെൻ പെർസെൻ്റേജാണ് വേണ്ടത് എന്നാലും കൊഴ ആ അപ്പം ആ അത് കഴിഞ്ഞ് എന്നാലും കുഴപ്പമില്ല പല പല കോളേജുകളും നമുക്ക് ട്രൈ ചെയ്യാം കിട്ടാതിരിക്കത്തില്ല ആ കോഴ്സ് എടുത്തുകഴിഞ്ഞ് പിന്നെ നിങ്ങളീ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മിക്ക മറ്റേ ക്യാമ്പസിൻ്റെ ഇൻ ക്യാമ്പസ് ഇൻറർവ്യൂ പോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചാൻസുകൾ വരും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്സിൽ പോവാനും അങ്ങനത്തെ നിരവധി അവസരങ്ങൾ കാണും ആ ആ ആ ആ ചേച്ചി സ്പേ ചേച്ചി സ്പേസിൽ പോയായിരുന്നോ

ആ എനിക്കറിയാം എനിക്കറിയാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ ലെക്ച്ചറർ ആയിരുന്നു ആ അതെയതെ ഒരു ആ ഒരു സ്പേസ് റിസൾട്ടെന്ന് പറഞ്ഞ ഒരു സബ്ജെക്റ്റ് ഞാനാ പഠിപ്പിച്ചേ പറഞ്ഞുകാണുമല്ലേ മൈ ഫേവറിറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു നല്ലപോലെ പഠിക്കും എൻറെ അന്വേഷണമൊക്കെ പറഞ്ഞേക്കണം ആ എന്നാൽ ഓക്കെ വേറെ ഡൗട്ട്സ് വല്ലതും ഉണ്ടോ ഓക്കെ സാർ ഓക്കെ താങ്ക് യൂ